ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അന്നൊരു ബൈക്കിങ്ങ് പരിപാടി ഉണ്ടായിരുന്നു അന്ന് ആ പരിപാടിയിൽ ഒരുപാട് ഒരുപാട് വലിയ വലിയ ബൈക്ക് റൈഡേഴ്സ് റേസർസ് വന്നിരുന്നു അത് അവർക്ക് ഇടയിൽ ഉള്ള ചെറിയൊരു മത്സരാർത്ഥി മാത്രമായിരുന്നു അന്ന് ഞാൻ

അനുഭവം വളരെ വലിയതാണ് അന്ന് പല കാര്യങ്ങൾ ഞാൻ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ

ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് പതറി പല ആളുകൾ വന്ന് കളിയാക്കാൻ തുടങ്ങി പല ആളുകൾ വന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പരിപാടിക്ക് ഇറങ്ങുന്നില്ല എന്ന ഘട്ടത്തിൽ വരെ ഞാൻ എത്തി ചെന്നു

ഒരുപാട് ഒരുപാട് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് മത്സരിക്കാൻ ഇറങ്ങാമെന്ന് പോലും ഞാൻ സമ്മതിച്ചത് മത്സരിക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഞാനും ശരി ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡ റെഡി ആകാൻ നിൽക്കുന്നത് പക്ഷേ അന്നത്തെ മത്സരത്തിൻ്റെ അവസാന സമയത്ത്